യോഗ ആദ്യമായി പരിശീലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗയിൽ പ്രധാനമായും ശ്വാസ ഗതികൾ ശ്വാസ ഗതികൾ നിയന്ത്രിക്കുന്നതാണ് യോഗയിലെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ശ്വാസഗതി നിയന്ത്രിക്കുമ്പോഴത്തേക്കും നമ്മളെക്കൊണ്ട് എത്രതാ എത്ര നേരം സാധിക്കും എന്നുള്ളത് നോക്കി അത് മാത്രം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അത് ശ്വാസം ആദ്യമേ നമ്മൾ ഒരുപാട് നേരം ശ്വാസം പിടിച്ച് നിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യോഗ കുറേ നേരത്തേക്ക് ചെയ്യാൻ കഴിയില്ല സമുക്ക് ശ്വാസം തടസ്സം നേരിടും അതുകൊണ്ട് നമ്മൾ ശ്വാസം ആദ്യം നമ്മൾ യോഗ ഒരുപാട് ശ്വാസം പിടിച്ച് ചെയ്യാതെ ശ്വാസം നോർമലായിട്ടുള്ള രീതിയിൽ യോഗ പരിശീലിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് എല്ലാ പ്രായത്തിൽ ഉള്ളവർക്കും യോഗ ചെയ്യാം എന്നുള്ളത് അറിയാമല്ലോ കുട്ടികൾക്ക് ആയിരുന്നാലും ഏത് പ്രായത്തിലുള്ളവർക്കും യോഗ ചെയ്യാവുന്നതാണ് പ്രായമായവർക്കും യോഗ ചെയ്യാം അവരും ശ്രദ്ധിക്കേണ്ട ആദ്യമായിട്ട് യോഗ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പൊസിഷൻ പൊസിഷനുകൾ നമ്മൾ കൃത്യമായി പൊസിഷനുകളിൽ നിന്നേ യോഗ ചെയ്യാവൂ ഓരോ ഓരോ പൊസിഷനുകളിലാണ് നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ശ്വാസം ഗതിയാണ് രണ്ടാമത്തേത് ഏറ്റവും ഇതിന് അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ശരിയായി നില ഉറപ്പിച്ചതിന് ശേഷമേ യോഗകൾ ഏതും ചെയ്യാവൂ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ സമയം ആണ് വേറെ വേറെ ഒരു കാര്യം നമ്മൾ തെരഞ്ഞെടുക്കുന്ന സമയം നല്ല ഒരു അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ആകുന്നതാണ് ഏറ്റവും നല്ലത് കൂടുതൽ ചൂടുള്ള സമയത്ത് യോഗ ചെയ്യുന്നത് അത്ര ആരോഗ്യകരമായി എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത് രണ്ടാമത് മൂന്നാമത് ആ ആ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് നാലാമത് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സമയം എത്ര സമയം ചെയ്യുന്നു എന്നുള്ള അത് ആദ്യമായിട്ട് യോഗ ചെയ്യുന്നവർ ഒരുവാട് സമയം ചെയ്യരുത് ഒരു ഒരേ ഒരേ യോഗം തന്നെ കൂടുതൽ സമയം ചെയ്തേ ചെയ്യരുത് യോഗ ഏതെങ്കിലും മൂന്നോ നാലോ എണ്ണം ഒന്നോ രണ്ടോ മൂന്നോ ആവർത്തി മാത്രം ചെയ്ത് ഒരുപാട് സമയം കൊണ്ടു പോകരുത് ഏതെങ്കിലും അത് എല്ലാ അല്ല അത് മാത്രമല്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് നമ്മൾ യോഗയിലേക്ക് കടക്കാതെ എന്തെങ്കിലും ചെറിയ ചെറിയ വാമപ്പ് എക്സസൈസുകൾ കൊച്ചു കൊച്ചു എക്സസൈസുകൾ നമ്മൾ നിന്നും ചെറുതായി കുനിഞ്ഞും അത് വളഞ്ഞും ഒക്കെയുള്ള പലതരത്തിലുള്ള ചെറിയ ചെറിയ വാമപ്പുകൾ ചെയ്തതിന് ശേഷം യോഗയിലേക്ക് തിരിയണം അതാണ് യോഗയിലേക്ക് പിന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പിന്നേ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ആഹാരം കഴിഞ്ഞ് ആഹാരം ഏത് തരം ആഹാരമായിരുന്നാലും ആഹാരം കഴിച്ച ഉടനെ നമ്മൾ വയർ നിറച്ചു ആഹാരം കഴിച്ചു നമ്മൾ ഉടനെ യോഗ ചെയ്യരുത് ഒരു ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂർ എങ്കിലും കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ യോഗ ചെയ്യാൻ ആരംഭിക്കാവൂ അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നേ കുളിച്ച നമ്മൾ കുളിച്ച് ഉടനെ തന്നെ യോഗ ചെയ്യരുത് നമ്മൾ യോഗയൊക്കെ ചെയ്തു ശരീരമൊക്കെ കുറച്ച് തണുത്തതിന് ശേഷമേ നമ്മൾ കുളിക്കാനും ഒക്കെ പോകാവൂ അപ്പം കുളിക്കുക യോഗ കഴിഞ്ഞ ഉടനെ കുളിക്കുകയും അരുത് കുളിച്ച് ഉടനെ യോഗ ചെയ്യുകയും അരുത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പിന്നെ എല്ലാ സമയം എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ചെയ്യണം എന്ന നിഷ്കർഷ ഒന്നും വച്ചു ഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അതു കൊണ്ട് നമുക്ക് പറ്റിയ സമയങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഉച്ച സമയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾക്ക് ഏത് സമയവും നമുക്ക് തെരഞ്ഞെടുത്ത് അത് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്ന ഒന്നാണ് യോഗ ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം ആദ്യമായി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മേൽപ്പറഞ്ഞ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധിച്ചു ചെയ്യണം